ഇപ്പോൾ കേരളത്തില് ലഭ്യമായ വിദ്യാഭ്യാസ എന്നൊക്കെ പറഞ്ഞാൽ അതായത് സ്കൂളുകള് ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള സ്കൂളുകള്ണ്ട് ഇപ്പോൾ ഗവൺമെൻ്റ് സ്കൂളുകള് പിന്നെ പ്രൈവറ്റ് സ്കൂൾസ് അങ്ങനെയൊക്കെയിണ്ട് പിന്നേ പറയാണെങ്കിൽ സി ബി എസ് ഇ സിലബസുകള് പഠിക്കുന്ന സ്കൂളുകള് അങ്ങനെയൊക്കെയാണ് ഒരുപാട് സ്കൂളുകള് ഇപ്പോൾ അവൈലബിളാണ് ഇപ്പോൾ ഗവൺമെൻ്റ് സ്കൂളുകൾന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ടൊത്തൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികള് വേണെങ്കിൽ വരാം പഠിക്കാൻ പോകാം കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ടീച്ചേഴ്സിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ എല്ലാരെയും നല്ല ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് കരുതിയിട്ടാണ് ഗവൺമെൻ്റ് സ്കൂളിലെ ഇതൊക്കെ എന്താ പറയാ ടീച്ചേഴ്സൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ പ്രൈവറ്റ് സ്കൂളുകളിൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സാലറി ആ സാലറിക്ക് വേണ്ട രീതിയിലുള്ള പഠനം മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോ കൂടുതല് പാരൻ്റ്സും എന്താ പറയുക ക്യാഷ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടീട്ട് കൂടുതല് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നോരുമുണ്ട് ട്യൂഷൻ അതിനു പുറമേ ട്യൂഷൻ ചെയ്തു കൊടുക്കുന്നവരുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ സി ബി എസ് ഇ സിലബസൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ച് കൊ വ വരണ്ട ഒരു ടീംസ് ആണ് അവരെ അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിൽ നിരവധി സ്കൂളുകളും കാര്യങ്ങളും ഇന്നും സമൂഹത്തില് കാണാൻ പ കഴിയുന്നുണ്ട്